അതായത് നമ്മുടെ പ്രകൃതിയുടെ ഒരു നിയമത്തിൽപ്പെട്ട ഒന്നു തന്നെയാണ് നമ്മുടെ സ്ത്രീകളിൽ ആർത്തവം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഇതിൽ പ്രത്യേകിച്ച് ഇവർ ഇപ്പോഴത്തെ പണ്ടത്തെ കാലത്ത് ആൾക്കാർ പറയുന്നതു പോലെ നമ്മൾ ഇങ്ങനെയാവണം അങ്ങനെ ആരോടും പുറത്തിറങ്ങാൻ പാടില്ല അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് പറയുന്നത് കുറെ ചട്ടങ്ങൾ ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് അപ്പം ഇതൊക്കെ ഇത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം നമ്മുടെ ശരീരത്തിൻ്റെ സ്വാഭാവികമായ സ്ത്രീകളുടെ ശരീരത്തിന് സ്വാഭാവികമായ മാറ്റങ്ങളിൽ ഒന്നു തന്നെയാണ് നമ്മുടെ ഈ ആർത്തവം എന്നു പറയുന്നത് അതായത് ഒരു കുഞ്ഞ് ജനിക്കാൻ നമ്മുടെ ഗർഭപാത്രത്തിനെ സജ്ജമാക്കുന്നതിനെ ഒരു പ്രധാനപ്പെട്ട ഒരു കർമ്മം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ് ഈ ആർത്തവം എന്ന് പറയുന്ന സംഭവം അതുകൊണ്ടു തന്നെ ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് ഇതിനെ ഒരു നമ്മൾ ഒരു എന്തോ ആർക്കുമില്ലാത്ത ഒരു സംഭവമായിട്ടോ അല്ലെങ്കിൽ ഒരു നാണക്കേടായിട്ടൊ ഒന്നും കാണേണ്ട കാര്യമില്ല അതേ മാതിരി തന്നെ ഇതിന് പ്രത്യേകിച്ച് നമ്മൾ പ്രത്യേകിച്ച് അടങ്ങി ഒതുങ്ങി ഇരിക്കേണ്ട കാര്യമില്ല നമ്മൾ സ്വാഭാവികമായിട്ട് തന്നെ നമ്മൾക്ക് ജീവിക്കാവുന്നതാണ് പക്ഷേ പ്രത്യേകം നമ്മൾ മെയിനായിട്ട് അതിനെ എന്താണ് പറയുന്നത് വൃത്തി ആയിട്ട് വൃത്തിയോടും ആരോഗ്യത്തോടും കൂടി ഇരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് നമ്മൾ ആ സമയത്ത് നമ്മുടെ ശരീരം വൃത്തിയായി സൂക്ഷിക്കുക നല്ല ഭക്ഷണം കഴിക്കുക ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി മറ്റു പണ്ട് പണ്ടുള്ള ആളുകൾ പറയുന്ന മാതിരി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് ആണുങ്ങളോട് സംസാരിക്കരുത് ആ ഭക്ഷണം ഉണ്ടാക്കരുത് ഇതൊന്നും ഇതൊക്കെ അർത്ഥം അതായത് ഒട്ടും അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ് ഇതിലൊന്നും വലിയ കാര്യമില്ലെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം